ഏറ്റവും കൂടുതലും ഞാൻ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിയാണ് മലകളും പുഴകളും ചെറിയ അരുവികളും മരങ്ങളും എല്ലാം ചേർന്ന ഒരു പ്രകൃതിയാണ് എനിക്ക് വരയ്ക്കാൻ ഏറ്റവും ഒരു ആഗ്രഹം ഉള്ളത് അതിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്ന ചിത്രങ്ങൾ വലിയൊരു മല മലേൻ്റെ സൈഡിൽ നമ്മൾ ചെറിയൊരു സൂര്യനെ വരയ്ക്കുന്നു അതിൻ്റയടുത്ത് ഒരു അതിൻ്റെ തൊട്ടു താഴെത്തന്നെ നമ്മളെയൊരു വീട് വീട്ടിൻ്റെ ചുറ്റും പൂന്തോട്ടം അത് കഴിഞ്ഞാലൊരു പുഴ പുഴയിൽ ചെറിയ ഒരു ഒരു തോണി കുഞ്ഞിക്കുഞ്ഞി താറാവുകൾ വീടിൻ്റെ മുറ്റത്ത് കോഴികൾ പശു അങ്ങനെ പ്രകൃതി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ പ്രകൃതിയിനെക്കുറിച്ചാണ് വരയ്ക്കാൻ എല്ലാവരും താല്പര്യപ്പെടുക അപ്പോൾ അതുപോലത്തെ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെതന്നെ ആകാശത്തുകൂടി പറവകൾ പറക്കുന്നു നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതലും ഈ പുഴകളും അരുവി തോട് എല്ലാം ചേർന്നതാണ് നമ്മളെയൊരു പ്രകൃതിയെന്നു പറയുന്നത്